ഹലോ വൈദ്യുതി വൈദ്യുതിയാലയമല്ലേ ഞാൻ ഒരു വെക്കേഷനാർത്ഥം പുറത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ബില്ലുകളും ക്ലിയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസവും അതിൻ്റെ മുന്നത്തെ മാസങ്ങളിലുമുള്ള പെൻഡിങ്ങിലുള്ള എല്ലാ ബില്ലിൻ്റെയും ഒരു കോപ്പി എനിക്കാവശ്യമുണ്ട് അതിനുവേണ്ടി ഞാൻ നിങ്ങളെ സമീപിക്കുകയാണ് അതുപോലെ ഇനി വരാനിരിക്കുന്ന മാസങ്ങളിലേക്ക് താൽക്കാലികമായി എൻ്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി കട്ട് ചെയ്യണമെന്നും അതിൽ നിന്നുള്ള മിനിമം ചാർജ് പിൻവലിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അടയ്ക്കാതെ പോയി വെച്ച ബാക്കിയായ ബില്ലുകൾ അത് ക്ലിയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ റെസിപ്റ്റും അതുപോലെയുള്ള കാര്യങ്ങളും എനിക്ക് ലഭിക്കേണ്ടതുണ്ട് കയ്യിൽ നിന്ന് മിസ്സായതുകൊണ്ട് അതിൻ്റെയും ബില് ഞാൻ ആവശ്യപ്പെടുന്നതോടൊപ്പം അതിൻ്റെ നഷ്ടപരിഹാരം എന്താണെന്നുവെച്ചാൽ അതും തരാൻ തയ്യാറാണെന്ന് ഞാൻ ചോദിക്കുന്നു മുഴുവനായും ഒരു പേപ്പറിൽ തന്നാൽ വളരെ ഉപകാരമായിരുന്നു